ഇപ്പം നമ്മൾ ഒരു സ്കൂളിൽ ചേരണമെങ്കിൽ നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് ഒന്നിലാണ് ചേരുന്നതെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയിട്ട് ആധാർ എടുത്തിട്ട് പോയി ചേർന്നാൽ മാത്രം മതി ആദ്യമൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ആരെങ്കിലും ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി പേരും നമ്മളുടെ എന്താ പറയുക നമ്മുടെ ഒരു ജനന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഒന്നിൽ കൊടുക്കുന്ന പേര് എന്താണോ അല്ലെങ്കിൽ അഡ്രസ്സ് എന്താണോ അതാണ് നമ്മുടെ പിന്നെ എപ്പോഴും നമ്മുടെ എസ് എൽ സി ബുക്കിലും പ്ലസ് ടൂൻ്റെ സർട്ടിഫിക്കറ്റിലാണെങ്കിലും നമ്മുടെ ആ ഒരു അഡ്രസ്സിലാണ് ഉണ്ടാവുക കാരണം അതിന് തെറ്റ് പറ്റാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊരു പ്രശ്നമായിട്ട് മാറും പിന്നീടത് തെറ്റ് തിരുത്തലൊക്കെ ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ ഒന്നിലൊക്കെയാണെങ്കിൽ ചേർക്കാൻ പോകുന്ന ആ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ എപ്പോഴും ക കയ്യിൽ കൊണ്ടു കൊണ്ടു പോകണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് പിന്നെ വേറെ ആവശ്യങ്ങളും എന്താ പറയുക നമുക്ക് ചിലപ്പം വീട്ടിൽ പോയിട്ട് എടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പം ആ സമയങ്ങളിൽ നമ്മളത് കൂടുതലായിട്ട് അത് കൊണ്ട് പോകണം പിന്നെ ഹാജരാക്കേണ്ടതെന്ന് പിന്നെ ഇപ്പം അഞ്ചാം ക്ലാസിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വേറൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകുകയാണെങ്കിൽ അപ്പം മെയ്നായിട്ട് ടി സിയും കാര്യങ്ങളാണ് മെയ്നായിട്ട് കൊണ്ട് പോകേണ്ടത് പിന്നെ അഞ്ചാം ക്ലാസിലേക്കാണെങ്കിൽ നമ്മളിപ്പം അവിടെ ആ ഒരു സർട്ടിഫിക്കറ്റുണ്ടാകും ഗുഡ് ബാഡ് അത് നമ്മൾ മെയ്നായിട്ടും കൊണ്ട് പോകേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ്